ആറ് ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി മൂന്ന് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത് പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്ന് പതിമൂന്ന് നാല് രണ്ടായിരത്തി ആറ്